ഹെലോ ഹാവേജൻസിയല്ലേ എനിക്ക് രാത്രി ഒരു മണിക്കൊരു ഫ്ലൈറ്റുണ്ട് ഐന് പോകാനുള്ളതാണെ ഞങ്ങൾ രണ്ട് പേരുണ്ട് പ്രായായോരാണ് അപ്പോൾ നല്ലൊരു ഡ്രൈവറെ ഞങ്ങൾക്ക് കൂട്ടി ഞങ്ങൾക്കൊരു ടാക്സി വിടോന്ന് വിജ് വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങക്കവിടെ ചെല്ലണം ഒരു മണിക്കൂർ മുമ്പ് ചെല്ലണം ചെക്കിങ് ചെയ്യാണ്ട് ബോഡിങ് പാസ്സ് വാങ്ങണം അപ്പോൾ അതെല്ലാത്തിനും കൂടിയായിട്ട് ഞങ്ങളെ ഒരു പന്ത്രണ്ടരയാവുമ്പൾത്തേയ്ക്കും ഇവിടെന്ന് ഒരര മണിക്കൂറിൻ്റെ വഴിയേ ഉള്ളു ഞങ്ങളെ വിടും വണ്ടി വിടൂന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ശരി ഉണ്ടാവുവല്ലെ ശരി ഓക്കെ